വസ്ത്രങ്ങള് കഴുകാനായിട്ട് ഞാന് രണ്ട് രീതിയിലും കാരണം കൈ കൊണ്ട് കഴുകുന്ന രീതീം ഉപയോഗം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മെഷിനിലും ഉപയോഗിക്കും മെഷിനില് വഴിയായിട്ടും ഇത് ചെയ്യാറുണ്ട് കാരണം കൂടുതൽ ചെളിയൊക്കെ ഉള്ള വസ്ത്രങ്ങളാണെങ്കില് നമ്മൾ കൈ കൊണ്ട് കഴുകി എടുക്കാറുണ്ട് അതിനൊക്കെ വെള്ളം നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കത്തക്ക രീതീലേക്കാണ് നമ്മൾ പ്ലാന് ചെയ്യുന്നത് എന്നാൽ പിന്നെ ഒത്തിരീം മുഷിഞ്ഞ് കഴിയാൻ മുഷിവ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വസ്ത്രങ്ങൾ അലക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി നേരെമറിച്ച് കൂടുതലും മുഷിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അപ്പം ഇപ്പോഴത്തെ വാഷിംഗ് മെഷിനിലൊക്കെ നമ്മൾ വെള്ളം അധികം ഉപയോഗിക്കേണ്ടി വരുന്നില്ല വെള്ളം കുറസിച്ച ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷിനികളുണ്ട് അപ്പം അങ്ങനെയുള്ള വാഷിംഗ് മെഷിനികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തീര്ച്ചയായിട്ടും വെള്ളത്തിന് വെള്ളം അധികം പാഴാക്കാതെ നമുക്ക് ഉപയോഗിക്കാന് സാധിക്കും പിന്നെ കാലാവസ്ഥകളിൽ ഉണക്കി എടുക്കുന്നത് നമ്മൾ പുറത്തിട്ട് തന്നെ ഉണക്കി എടുക്കാണെന്നുണ്ടെങ്കില് നമ്മൾ മെഷിനില് കറണ്ട് ലാഭിക്കാം അല്ലെങ്കില് വെള്ളമൊക്കെ ലാഭിക്കാം അങ്ങനെയുള്ള ഓപ്ഷന് വരുമ്പോഴത്തേക്കത് നമ്മൾ പുറത്ത് തന്നെ വെയിലത്തിട്ട് ഉണക്കി എടുക്കുവാണെങ്കില് വസ്ത്രങ്ങള്ക്കും ഒന്നും കൂടെ ഭംഗി ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ ഒരു രൂപത്തിലേക്കാണ് പലപ്പോഴും അത് ചെയ്യുന്നത്